ഒരു ഫോട്ടോ എടുക്കുന്നത് പോലെ അല്ല നമ്മുടെ ക്യാമറ ഉപയോഗിച്ചു റീൽസുകളും ഹ്രസ്വചിത്രങ്ങളും എടുക്കുന്നത് ഒരു ഫോട്ടോ എടുത്താൽ അതൊരു സ്റ്റിൽ ആയിട്ട് ഇങ്ങനെ നിൽക്കും എന്നല്ലാതെ ബാക്കി അതിൻ്റെ പുറകിലുള്ള സീൻസ് ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല ആ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അത്രയും ഏരിയ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നാൽ ഒരു ക്യാമറ ഉപയോഗിച്ച് നമ്മൾ പല രീതിയിലുള്ള ഒരു റീൽസ് എടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ പല രീതിയിലുള്ള മെമ്മോറിസ് നമുക്ക് പിന്നീട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഹ്രസ്വ ചിത്രങ്ങൾ എടുക്കുമ്പോഴും എന്നാൽ ഒരു ഒരു പടം മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു ഫോട്ടയിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ മനസ്സിലാവത്തില്ല അതുകൊണ്ട് നമ്മൾ ക്യാമറ വഴി ഈ റീൽസുകൾ ഹ്രസ്വ ചിത്രങ്ങൾ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്